ആരായിരുന്നു അതെ

ആണോ ആണോ വീട്ടിലാർക്കെങ്കിലും ഉണ്ടായിരുന്നോ അങ്ങനെ ജലദോഷാമോ ഒന്നുവില്ലാല്ലെ മഴയെന്തെങ്കിലും നനഞ്ഞായിരുന്നോ ഉം തിളപ്പിച്ചാറിയ വെളളവല്ലേ കുടിക്കുക അതോ പച്ച വെള്ളവോ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാറില്ല ആണല്ലേ അങ്ങനെയാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഇനി കുടിക്കുക കാരണം കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുവല്ലേ അപ്പം മഴക്കാലം വേനൽക്കാലം ഇതൊക്കെ മാറി മാറി ഇതാവുവല്ലേ അപ്പം ചിലപ്പം ബാക്റ്റീരിയാസൊക്കെ ഉണ്ടാകും അപ്പോൾ ആ വഴി ചിലപ്പം ജലദോഷം പനി കാര്യങ്ങളൊക്കെ വന്നിട്ട് ചിലപ്പം വേറെ വലിയ എന്തെങ്കിലും അസുഖം വന്നേക്കാം അപ്പം എന്ത്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ നിന്ന് പല അണുക്കളും ഉണ്ടാകുന്നയല്ലേ അപ്പം വെള്ളം തിളപ്പിച്ചാറിയിട്ട് മാത്രമേ കുടിക്കാവുള്ളു ഇപ്പം പച്ച വെള്ളം കുടിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മള് നല്ല തണുത്ത ഒരിത് കിട്ടാൻ വേണ്ടി അല്ലേ അപ്പം എന്ത് ചെയ്യുക തലേ ദിവസം വെള്ളം തിളപ്പിച്ച് വയ്ക്കുക പിറ്റേ ദിവസം ആവുമ്പത്തേക്ക് കുറച്ച് തിളപ്പിച്ച് കൂടുതല് വെച്ചാൽ പിറ്റേ ദിവസം ആവുമ്പത്തേക്ക് നിങ്ങൾക്ക് കുടിക്കാൻ ആവും അപ്പം മാക്സിമം പച്ച വെള്ളം ഒഴിവാക്കുക ഉം ചൂട് വെള്ളം കുടിക്കാൻ നോക്കുക ഒന്ന് കാണിക്കുന്ന നല്ലതായിരിക്കും വരാ രണ്ട് ദിവസമായി എന്നാണ് തുടങ്ങിയിട്ടെന്ന് പറഞ്ഞത് മൂന്ന് ദിവസം അല്ലേ ആ അപ്പോൾ എന്തായാലും ഒന്ന് കാണിക്കുന്ന നല്ലതായിരിക്കും പാരസെറ്റമോൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ

ആ ഹാ ഹാ അങ്ങനെ അങ്ങനാണങ്കില് ജസ്റ്റൊന്ന് എന്നിട്ട് നല്ല പനിയാണോ അതൊ ചെറിയ ചെറിയ പനി ചെറുതായിട്ടാണോ ഉള്ളൂ ആ ഹാ ഹാ അപ്പോൾ ഒന്ന് എന്തായാലും ഒന്ന് കാണിക്കുന്ന നല്ലതായിരിക്കാം പനി മാത്രമെ ഉള്ളോ അതോ ജലദോഷം തുമ്മല് തൊണ്ട വേദന അങ്ങനെന്തേലും ഉണ്ടോ ആ അപ്പം അങ്ങനെ ചെയ്യുന്ന നല്ലായിരിക്കും കെട്ടോ ഒന്ന് കാണിക്കുന്ന നല്ലായിരിക്കും കാണിച്ച് കഴിഞ്ഞിട്ട് പാരസെറ്റമോള് കുടിച്ചാൽ മതി അതായിരിക്കും നല്ലത് കാണിക്കുന്നതിനു മുന്നെ കുടിക്കുന്നതിലും നല്ലത് അങ്ങനെയാകുമ്പോൾ നമക്കെന്താന്ന് അറിയാൻ പറ്റുവല്ലോ അപ്പോൾ രണ്ട് ദിവസം ഒന്ന് കഴിച്ച് നോക്കീട്ട് മാറ്റമില്ലെങ്കിൽ നമുക്ക് ഒന്ന് ബ്ലഡ്ഡ് ടെസ്റ്റ് ചെയ്യാം ആ ഓക്കെയെന്നാൽ